ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് മലയാളം മലയാളത്തിൽ നമ്മൾ കേരളത്തിലെ കേരളത്തിൽ മലയാളത്തിൻ്റെ ഒരു തനിമയാണ് നിൽക്കുന്നത് എന്നാൽ ഇന്ത്യയിലെ എല്ലാ സംസഥാനങ്ങളിലും മലയാളികളുണ്ട് അപ്പം നമ്മുടെ ഇവിടുത്തെ ഓണം അങ്ങനെയുള്ള വിഷു അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രധാനപ്പെട്ട ദിവസങ്ങൾ അവരവിടെ ആചരിക്കും അതുപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനത്തുള്ളവർ കേരളത്തിൽ വരികയും മലയാളം സംസാരിക്കാനായിട്ട് അവർ പഠിക്കുകയും നമ്മുടെ മലയാളികളുടെ നാടൻ കലാരൂപങ്ങളായ കഥകളി തെയ്യം പിന്നെ അതുപോലെയുള്ള പൂരങ്ങൾ അങ്ങനെയുള്ളതൊക്കെ മറ്റുള്ളവർ വന്ന് നമ്മുടെ നാട്ടിൽ വന്നിട്ട് അവർ അത് ആസ്വദിച്ച് പോവുകയാണ് ചെയ്യാറുള്ളതിപ്പം ഇത് അവരുടെ നാടുകളിലും അവർ നടപ്പിലാക്കാൻ നോക്കുന്നുണ്ട് ഇപ്പം ഉദാഹരണത്തിന് കർണ്ണാടക എന്ന സ്ഥലത്ത് മലയാളികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓണം വിഷു അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ അവിടെ അവർ നല്ല ഭംഗിയായിട്ട് ആഘോഷിക്കാനായിട്ട് അവർ കൂടുതൽ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇന്ത്യയുടേയും ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ കേരളത്തിൽ വന്ന് വച്ചിട്ട് അവർ നാടൻ കലാരൂപങ്ങൾ കണ്ട് ആസ്വദിക്കുന്നു പൂരങ്ങൾക്കൊക്കെ ദിവസങ്ങൾക്ക് മുമ്പ് അവർ വന്ന് ഇങ്ങനെ അവർ ആസ്വദിച്ചിട്ടൊക്കെയാണ് പോകുന്നത് നാടൻ ഈ കലാരൂപങ്ങൾ അവരുടെ നാടുകളിലും അവർ പ്രദർശിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അതിനായിട്ട് മലയാളികളെ വന്ന് ഇവിടെ നിന്ന് അവർ കൊണ്ടുപോകുന്നുമുണ്ട് ഇപ്പം മലയാള ഭാഷയ്ക്ക് എല്ലായിടത്തും നല്ല പ്രധാന്യമാണ് കൊടുക്കുന്നത് കർണ്ണാടകയും തമിഴിൽ നിന്നും ബ്രാഹ്മണരാണ് ഈ മലയാള ഭാഷ രൂപീകരിച്ച് എടുക്കാനായിട്ട് മുൻകൈ എടുത്തതും മലയാള ഭാഷ അവർ നിലവിൽ കൊണ്ടുവന്നതും അവരാണ് അതുപോലെ തന്നെ കേരളത്തിലെ പല മേഖലകളിലേക്കും അല്ലെങ്കിൽ ഇന്ത്യയുടെ പല മേഖലകളിലേക്കും മലയാള ഭാഷ ഇന്ന് എത്തി ചേർന്നിട്ടുണ്ട് അപ്പം മലയാള ഭാഷയിൽ നമ്മൾ എല്ലാവരും അഭിമാനം കൊള്ളുന്ന നിമിഷങ്ങളാണ് ഇത്